ഞങ്ങളുടെ പ്രദേശത്ത് വിദ്യാലയങ്ങളെയും പിന്നെ ഇപ്പോഴത്തെ തലമുറ ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ രംഗത്താണ് പഠിക്കാൻ താത്പര്യപ്പെടുന്നതും എങ്ങനെയുള്ള വിദ്യാഭ്യാസമാണ് ഇന്നത്തെ തലമുറയിൽ കുട്ടികൾക്ക് കൊടുക്കുന്നതും എന്നെല്ലാം സംസാരിക്കുന്നതും എന്നെല്ലാമാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ന് ഇപ്പോൾ തന്നെ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ പ്രദേശത്ത് പ്രദേശം പ്രശസ്തമായൊരു സ്കൂളെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് ദേവമാതാ എന്ന വിദ്യാലയമാണ് ആ വിദ്യാലയത്തിൻ്റെ പ്രത്യേക പ്രത്യേകതകളെന്താണെന്ന് അവിടെ പഠിക്കാൻ ഒരുപാട് ഫീസ് ഗഡു നമ്മള് കൊടുക്കണ്ട വരും പക്ഷേ എന്നിരുന്നാലും അവിടെ കൊടുക്കുന്ന ഓരോ കുട്ടിക്കും കൊടുക്കുന്ന വിദ്യാഭ്യാസം അവരുടെ വിദ്യാഭ്യസ രംഗത്ത് അവർ നല്ല അച്ച അച്ചടക്കത്തോടെയും പിന്നെ അവർക്ക് എന്തെല്ലാമാണ് ഒരു കുട്ടിക്ക് ആവശ്യമെന്ന് അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടുമാണ് അവർ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വിദ്യാഭ്യാസം കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് അതുമാത്രമല്ല ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസം തേടിപ്പോകാൻ വേണ്ടി അന്യപ്രദേശത്തെ സ്കൂളുകളിലും മറ്റ് രാജ്യങ്ങളിലേക്കെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് താത്പര്യപ്പെട്ടു പോകുന്നുണ്ട് കാരണം ഇന്നത്തെ നമ്മുടെ നമ്മളുടെ ഇന്നാട്ടിലെ വിദ്യാഭ്യാസം അവർക്ക് ഇഷ്ടപ്പെടാതെ അവർ പോകാനുള്ള കാരണം അതിലൊന്നാമത്തെ കാരണം തന്നെ പൈസയാണ് പൈസാ നിരക്ക് തന്നെയാണ് ക്ക് ഓരോ വിദ്യാലയത്തിലും അവർ ഓരോരോ ആ ആ മുടക്കുന്ന പൈസക്കനുസരിച്ചുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കുന്നില്ല അതുകൊണ്ടു തന്നെ അവർ കൂടുതൽ പൈസ കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിലും മറ്റ് പ്രദേശത്തെ വിദ്യാലയങ്ങളിൽ പോലും പോയി പഠിക്കാൻ താത്പര്യപ്പെടുന്നു കൂടുതൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം അവർക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത് അവിടെ അവർ പഠിക്കാൻ അങ്ങനെയാണ് താത്പര്യപ്പെടുന്നത് ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് അവർ പഠിച്ചിറങ്ങിയാലും നമ്മുടെ നാട്ടിലവർക്ക് വേണ്ടപ്പെട്ട ജോലിയോ അവരുടെ പഠിപ്പിനനുസരിച്ചുള്ള പൈസകളൊന്നും ജോലി ചെയ്താൽ അവർക്ക് ലഭിക്കുന്നില്ല അതുകൊണ്ടു തന്നെ അന്യനാട്ടിലെ സർട്ടിഫിക്കറ്റുകൾക്ക് അവർ പ്രാധാന്യം കൊടുത്തു കൊണ്ട് അത് വെച്ചിട്ടാണവർ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നത്